ഹലോ ഓറഞ്ച് ബേക്കെര്സല്ലെ ഞാനിവിടെ മങ്ങാട്ട്കരയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു ഓർഡർ തരാന് വേണ്ടിയിട്ടാണ് പേസ്ട്രീസ് മുന്നൂറ് നംമ്പേര്സ് ഒര് ബര്ത്ത്ഡേ പാര്ട്ടിക്ക് വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണ് ഒരു പീസിന് റേറ്റ് എങ്ങനെയാണ് ഓക്കെ ഓഫറെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഞങ്ങള് വേറെ റെസ്റ്റോറന്റിലും ബേക്കേസിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതിനേക്കാള് കുറവായിരുന്നു നമ്മളവിടുത്തെ റെഗുലര് കസ്റ്റമറാണ് അപ്പോൾ നിങ്ങള്ക്കെന്തേലും ചെയ്ത് തരാന് പറ്റുന്നുണ്ടെങ്കില് നന്നായിരുന്നു എങ്കില് ഞങ്ങളവിടെത്തന്നെ ഓഡര് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആണല്ലേ അങ്ങനെയാണങ്കില് ഓണറുവായിട്ടൊന്ന് ഡിസ്ക്കസ് ചെയ്യാമോ ഞാനപ്പൊഴത്തേക്കും വീട്ടിലൊന്ന് ഡിസ്ക്കസേയ്തിട്ട് കുറച്ച് ഒരു ഹാൾഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം അങ്ങനെയാണങ്കിൽ അത് ഓർഡർ കണ്ഫേം ചെയ്യാമായിരുന്നു ഡെലിവറി ഉണ്ടല്ലോ അല്ലെ വീട്ടില് ഓക്കെ അങ്ങനെയാണെങ്കില് ഞാന് എത്രയും പെട്ടന്ന്തന്നെ നിങ്ങളെ വിളിച്ച് വിവരം പറയാം ഒക്കെ താങ്ക്യൂ